ചിത്ര രചനയെ സ്വാധീനിച്ചത് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും എനിക്ക് ചിത്ര രചനയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കലാകാരനാണ് ലിയനാർഡോ ഡാവിഞ്ചി അദ്ദേഹത്തിൻ്റെ മൊണാലിസ എന്ന ചിത്രം എന്നും ഒരു ആസ്വാദ ആസ്വാദനം എന്നും ഒരു കൗതുകമാണ് ആസ്വാദകനുമപ്പുറം അത് പല പല രഹസ്യങ്ങളുമടങ്ങിയിരിക്കുന്ന ഒരു ഒരു കൗതുകമായി എനിക്ക് തോന്നാറുണ്ട് വളരെയേറെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം അന്നത് വരച്ചിരുന്നത് പലതും പലതും പ്രകൃതിദത്തമായ ഛായക്കൂട്ടുകളും മറ്റും ഉപയോഗിച്ചാണ് അത് വരച്ചിരുന്നത് എന്നും വളരെ കഷ്ടം അനുഭവി കഷ്ടത്തോടെയാണ് പണ്ട് ആളാണ് ഈ ചിത്രങ്ങളെല്ലാം വരച്ചിരുന്നത് എന്നാൽ ഇന്ന് നമുക്ക് പല സൗകര്യങ്ങളും ഉണ്ടായി ഉണ്ട് പിന്നെ എന്നെ സ്വാധീനിച്ച മറ്റൊരു മറ്റൊരു കലാകാരനായിരുന്നു വിൻസെൻ്റ് വാൻഗോഗ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ ഇന്നും എപ്പളും ഒരു കൗതുകം എന്നും നിറഞ്ഞിരിക്കുമായിരുന്നു അദ്ദേഹം എന്നും വളരെയേറെ ഒരു ചിത്രകാരനെ സ്വാധീനിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റാറി നൈറ്റ് എന്ന ചിത്രം ചിത്രം വളരെയേറെ കൗതുകരമാണ് ഒരു ഒരു മനഃശാസ്ത്രജ്ഞനെ പോലും മനസുകൊണ്ട് കടുപ്പിക്കുന്ന ചിത്രമാണ് അത് ആ ചിത്രം വളരെയേറെ പ്രശസ്തി നേടിയിരുന്നു എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരു മറ്റൊരു കലാകാരനാണ് നമ്മുടെ കേരളത്തിലെ രാജ രവിവർമ്മ അദ്ദേഹത്തിൻ്റെ പല പല പല ചിത്രങ്ങളും ഇന്നും കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കിയതു പോലെത്തന്നെ വളരെ സ് നല്ല രീതിത്തന്നെ ഇന്നുമുണ്ട് അതിലേറ്റവും പ്രിയം എനിക്കേറ്റവും പ്രിയപ്പെട്ട ഒരു ചിത്രമാണ് ഫലമേന്തിയ വനിത ഇന്നും കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ ആളുകൾക്ക് പോലും വളരെയേറെ വെല്ലുവിളി ഏർപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് രാജ രവിവർമ്മയുടെ ഫലമേന്തിയ വനിത മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മറ്റു ചിത്രങ്ങളും അതുപോലെത്തന്നെയായിരുന്നു പിന്നെ ഇന്നത്തെ കലാകാരന്മാരിൽ പലരും കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഡ്രോയിങ് ആണ് ചെയ്യുന്നത് അതും വളരെ കൗതുകമുണ്ടാക്കുന്ന ഒന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചിത്രങ്ങളെന്നു പറയുന്നത് എന്നും എന്നും പ്രകൃതി പ്രകൃതിയുമായി ഇണങ്ങിയ ചിത്രങ്ങളായിരുന്നു പ്രകൃതിയുടെ ചിത്രങ്ങളും മറ്റും ഞാന് പല പല കുട്ടികളും ചെറുപ്പത്തിൽ വരച്ചു പഠിക്കുന്നത് തന്നെ അവരുടെ ഗ്രാമത്തെ ആയിരിക്കും അതുകൊണ്ടുതന്നെ ഒരു ഗ്രാമത്തെ പ്രകൃതിയുമായി ബന്ധപ്പെടുത്തി ചിത്രങ്ങൾ വരയ്ക്കാനെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇഷ്ടമാണ് ഞാൻ വരക്കുന്നതിൽ കൂടുതലും അങ്ങനെയുള്ള ചിത്രങ്ങളും മാത്രമല്ല മറ്റു ചിത്രങ്ങളെന്നു പറയുന്നത് പല നമ്മൾക്ക് കാണുന്ന ചിത്രങ്ങളിലെ ചലച്ചിത്രങ്ങളിലെ പല കഥാപാത്രങ്ങളെയും ഞാൻ വരയ്ക്കാറുണ്ട് അങ്ങനെ പല ചലച്ചിത്രകാരന്മാരും കഥാപാത്രങ്ങളും വരക്കുന്നതെനിക്കിഷ്ടമാണ് പലരും ഈ കാര്യങ്ങൾക്കായെന്നെ സ്വാധീനി ഈ കാര്യങ്ങളെന്നെ സ്വാധീനി സ്വാധീനിച്ചിട്ടുണ്ട് മാത്രമല്ല ഞാൻ പെയിൻ്റിങ് മ്യൂസിയങ്ങളും മറ്റും ഇടയ്ക്ക് സന്ദർശിക്കാറുണ്ട് മാത്രം സന്ദർശിക്കാറുണ്ട് ബുക്കുകളിൽ പുസ്തകങ്ങളിലായാലും മറ്റും വരയ്ക്കുന്ന ചിത്രങ്ങളിൽ നിന്നും കൗതുകമുണർത്തുന്നവയായിരുന്നു എന്നും ചിത്രം വരയ്ക്കാനെനിക്ക് വളരെ ഇഷ്ടമായിരുന്നു ചിത്രങ്ങള് ഈ ചിത്രമെല്ലാം വരച്ച് വരക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും മൈക്കിൾ ആഞ്ചലോ വിൻസെൻ്റ് വാൻഗോഗ് ലിയനാർഡോ ഡാവിഞ്ചി രാജ രവിവർമ പോലുള്ള ആളുകളായിരുന്നു അവര് അവരുടെ എല്ലാം അവരുടെ ഒപ്പം എത്തുന്നത് ഒരിക്കലും എത്തില്ലെങ്കിലും അവരിൽ പലരും എന്നെ ചിത്രം വരക്കൻ സ്വാധീനിച്ചിട്ടുണ്ട്